ജനിച്ചപാടേ കുട്ടികളെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പരിപാലിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനിച്ച് അരമണിക്കൂറിനുള്ളിൽ അതായത് നോർമൽ ഡെലിവറി ആണെങ്കിൽ ജനിച്ച് അരമണിക്കൂറിനുള്ളിൽ നമ്മൾ അമ്മേൻ്റെ മുലപ്പാൽ കൊടുക്കണം എന്നാണ് പറയുക പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഓപ്പറേഷൻ ഒക്കെ ഉള്ളതാണെങ്കിൽ ജനിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ നിർബന്ധമായിട്ടും കൊടുക്കണം എന്ന് പറയും പിന്നെ നമ്മൾ എന്താ അവരെ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ അവരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഗർഭപാത്രത്തിലുള്ള ചൂടും അതൊക്കെക്കൊണ്ട് ഇങ്ങനെ വന്നേക്കുന്നത് അപ്പോൾ ആ ഒരു പുറത്തു വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ നമ്മുടെ കാലാവസ്ഥ അതായത് തണുപ്പ് ആണെങ്കിലും ചൂടാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് പറ്റി എന്നുവരില്ല അപ്പം നമ്മൾ അവരെ എപ്പോഴും പൊതിഞ്ഞു കൊണ്ടുപോകാൻ സൂക്ഷിക്കണം പിന്നെ എന്തെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വേറെ അതായത് എന്തെങ്കിലും ജലദോഷമോ തുമ്മലോ ചുമയോ അങ്ങനെയുള്ള എന്തെങ്കിലും രോഗങ്ങളുള്ള ആൾക്കാരെ അടുത്ത് പരമാവധി കൊണ്ട് പോകാതിരിക്കുക പിന്നെ അവർക്ക് കൊടുക്കുന്ന ഭക്ഷണം എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ ആറുമാസം മുലപ്പാൽ മാത്രമേ കൊടുക്കാൻ പാടുള്ളു പിന്നെ ആറുമാസത്തിനുശേഷം ചോറൂണ് അങ്ങനെയുള്ള സംഭവമൊക്കെ കഴിഞ്ഞതിനു ശേഷം നമുക്ക് മുത്താറി കൊടുക്കാം അതായത് രണ്ടു നേരം മുത്താറി കൊടുക്കാം പിന്നെ ഒരു എട്ട് ഒൻപത് മാസം ഒക്കെ ആകുമ്പോൾ നമുക്ക് ഇത്തിരി ചോറ് ചോറ് ഇത്തിരി ചോറ് അങ്ങനെ പച്ചക്കറി അങ്ങനെയുള്ള സാധനകളൊക്കെ കുറച്ച് കുറച്ച് കൊടുക്കാം അവർക്കെന്ന് വെച്ചാൽ നമ്മൾ ഓവർ ഒന്നും കൊടുക്കാൻ പാടില്ല അവർക്ക് ദഹിക്കില്ല അങ്ങനെ ഒരു വയസ്സ് വരെ നമ്മൾ അങ്ങനെയാണ് അവരെ നോക്കേണ്ടത്